ഹലോ ആ ആർക്കാടി ഹോട്ടലല്ലേ ആ ഇത് ഞാനെ ഒരു ഫുഡ് ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ അപ്പോൾ ഫുഡ് ഒരു അഞ്ച് മണിക്ക് കൊണ്ടു വരാമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ നാലേ മുക്കാൽ ഇതുവരെയായിട്ടും കണ്ടില്ല പത്ത് പൊറോട്ടയും രണ്ട് ബീഫ് കറിയും ആയിരുന്നു ഞാൻ ഓഡർ ചെയ്തത് ആ ഇതുവരെയായിട്ടും കണ്ടില്ല ഇപ്പം ഓൺലൈനിൽ നോക്കിയിട്ട് നമുക്കത് കാണാനും പറ്റുന്നില്ല നാലേ മുക്കാൽ കഴിഞ്ഞു അഞ്ചു മണിക്ക് സാധനം എത്തേണ്ടതാണല്ലോ അതിപ്പം വരും വരുവാന്നു വെച്ചാൽ ഞാ അവരുടെ കയ്യിൽ തന്നെ നമ്മൾ പൈസ കൊടുക്കണോ ആ കണ്ടില്ല അതുകൊണ്ടാണ് നമ്മൾ വിളിച്ചതെ നമുക്കൊരു ബന്ധുക്കാർ വന്നിരിക്കുന്നു ആ സമയം ഇവിടെ വെള്ളവുമാണ് അവർ വരാൻ ഇനിയും താമസിക്കുമോ റോഡിലൊക്കെ വെള്ളവും ഉണ്ട് കണ്ടില്ല ഒരഞ്ചുമണിക്ക് ഗസ്റ്റ് പോകുകയും ചെയ്യും അവർക്ക് കൊടുത്തു വിടാനായിരുന്നു ആ ഫുഡ് കൊണ്ടുവരുന്ന ആളുടെ കയ്യിൽ തന്നെ കാശ് കൊടുത്തു വിട്ടാൽ മതിയല്ലോ അല്ലെ ആ ശരി എന്നാൽ ഓക്കേ